ഞങ്ങളുടെ നാട്ടിൽ ഒരു പ്രത്യേക വിഭാവം ആൾക്കാരുകൾ താമസിക്കുന്നുണ്ട് ആദിവാസി വിഭാവത്തിൽപ്പെട്ട അവർ ഒരു നൃത്തരൂപം അവതരിപ്പിക്കാറുണ്ട് അത് അവരുടെ ആ ദേവി സങ്കൽപ്പത്തെയാണ് അവർ അവതരിപ്പിച്ചു കാണിക്കുന്നത് അവർ ചെണ്ടയും താളവും മേളവും എല്ലാം കൂട്ടി നൃത്തം അവതരിപ്പിക്കാറുണ്ട് അവർ അമ്പലങ്ങളിൽ അതും മറ്റു സ്റ്റേജ് സ്ഥലങ്ങളിലോ ഒന്നും അവർ അവതരിപ്പിക്കാറില്ല അവരുടെ കല്ല്യാണ കല്ല്യാണ സമയത്തും അവരുടെ കുടുംബത്തിലുള്ള എന്തെങ്കിലും ഒരു വിശേഷ ദിവസം മാത്രമോ അവർ ആ ഒരു കല അവതരിപ്പിക്കാറുള്ളു അവരുടെതായ താളങ്ങളിലും ചുവടുകളിലും അവതരിപ്പിക്കുന്ന ആ നൃത്തം വളരെ മനോഹരമാണ് അവർ അത് പരമ്പരാഗതമായി അതു കൈമാറി വരുന്ന ഒരു കലയാണ് അവരുടെ ദേവി അവതരിപ്പിച്ചിരുന്ന ഒരു കലാരൂപം ആയിട്ടാണ് അവർ അതിനെ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ആ ഒരു നൃത്തരൂപത്തെ അവർ അവരുടെ പാരമ്പര്യ കല എന്നു മാത്രമാണ് വിശേഷിക്കുന്നത് മറ്റു പേരുകളിലോ ഒന്നും അവർ വിശേഷിപ്പിക്കാറില്ല